ആ അതേ ഇത് ഇലക്ട്രിഷ്യൻ അല്ലേ ആ ഞാനൊരു ഇവൻറ് മാനേജ്മെൻറ് നടത്തുന്നതാണ് ഞാനേ ഒരു ഇവൻറ് മാനേജ്മെൻറ് നടത്തുന്നയാളാണ് അപ്പോൾ എനിക്കവിടേക്കൊരു അവിടേക്കെനിക്കൊരു ജനറേറ്റർ വേണ്ടീന്നു

എനിക്ക് കല്യാണമൊക്കെ ആ സൗണ്ടൊന്നും ഇല്ലാത്ത സൈസാ വേണ്ടത് ആഹ ആ അതിന് എത്ര റേറ്റ് ആവും

ആ ആ അതിൻ്റെ ഫിറ്റിങ്ങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളത് ചെയ്തുതരുവോ

അതിൽ ആ ഡീസലാ ഉപയോഗിക്കുന്നത്

ആ ആ ഇതിപ്പോൾ ഇപ്പോഴത്തെ ഈ ഇവൻറ് മാനേജ് ആ ആ ഇപ്പോഴത്തെ പരിപാടിയൊക്കെ ഹോളിൽ ഒക്കെയാകുമ്പോൾ റോഡ്സൈഡ് ഒക്കെയാണല്ലോ അപ്പം അതിന് ഇത് സൗണ്ടില്ലാത്തതാണ് വേണ്ടത്

ആ ഓ ഓ അതൊന്നു നിങ്ങൾ വന്നു ഫിറ്റ് ചെയ്തുതരുവേം വേണം എന്നാൽ ഓക്കേ